ഹാലോ ആൽഫാ ഹോട്ടൽ അല്ലേ മാനേജർ സാറാണോ ഞാൻ ഒരു ചിക്കൻ ബിരിയാണി ഓഡർ ചെയ്തിരുന്നു അത് ഒന്നേ കാലിന് കിട്ടണം എന്നാണ് പറഞ്ഞത് പക്ഷെ വന്നപ്പോൾ തന്നെ അഞ്ചു മണിയായി ബിരിയാണി പായ്ക്ക് തുറന്ന് നോക്കിയപ്പോഴാണ് ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ട് കപ്പ ബിരിയാണി ആണ് കൊണ്ടു വന്നത് അയ്യോ അതുപോട്ടെ അഞ്ചു മണിയായല്ലോ എന്ന് കണക്കു കൂട്ടി കഴിക്കാമെന്ന് നോക്കിയപ്പോഴത്തേക്ക് അത് കാശിന് കൊള്ളത്തില്ല ഭയങ്കര എരിവോ എണ്ണമയോ ഒരു വളുപ്പോ ഒരു രീതിക്കും അത് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതല്ലെന്ന് രാവിലെ വല്ലതും ചെയ്തതോ അല്ല പാക്ക് ചെയ്തു വച്ചതൊക്കെ ആയിരിക്കും അത് അത് പിന്നെ നമ്മൾക്ക് റിവ്വി ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ അതിന് എന്ത് ചെയ്യണം ഇവിടെവ ന്ന് എടുത്തു കൊണ്ട് പോകുമോ അതോ ഞങ്ങൾ കൊണ്ടു തരണോ അതല്ലെങ്കിൽ ഞങ്ങൾ പോലീസിൽ പരാതിപ്പെടും ഒട്ടും ഒട്ടും കൊള്ളത്തില്ല അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു പട്ടിക്ക് പോലും കഴിക്കാൻ കൊള്ളുന്ന രീതിക്കുള്ള സാധനം അല്ല അതുകൊണ്ട് നിങ്ങളുടെ ഹോട്ടലിനെ അത് വളരെ മോശമായി തീരും അതിന് എന്തെങ്കിലും ഞങ്ങൾക്ക് ഒന്നുകിൽ ഞങ്ങൾ മുടക്കിയ പൈസ നിങ്ങൾ തിരികെ തരണം അല്ലാത്ത പക്ഷം അല്ലെങ്കിൽ നല്ല ഫുഡ് ഞങ്ങൾക്ക് കൊണ്ടത്തരണം ഇത് ഒന്നിനും കൊള്ളാത്ത ഫുഡായിരുന്നു

രീതിയിൽ മുന്നോട്ട് പോകും അത് നിങ്ങളെ നിങ്ങളുടെ ഹോട്ടലിനെ വളരെ

കൊച്ചു കൊച്ചുപിള്ളേ മക്കളൊക്കെ ഉണ്ട് അവർക്ക് ഇത് കൊടുത്താൽ വല്ല അസുഖങ്ങൾ വരെ ഉണ്ടാകെയേലേ പകർച്ച സമയത്ത് അസുഖങ്ങൾ ശർദിലും ഒക്കെ ഉണ്ടായി ഒന്നാമത് ഇവിടെ വെള്ളമൊക്കെ പൊങ്ങി കിടക്കുന്ന സമയമാണ് തണുപ്പും പിള്ളേർ മക്കൾ പിള്ളേരാണെങ്കിൽ വെള്ളത്തിലൊക്കെ കളി ഓടിക്കളിച്ചും ഒക്കെ നടന്നിട്ട് ഇത് ഇപ്പോൾ ഫുഡ് കഴിച്ചാൽ അവരുടെ സ്ഥിതി എന്താകുമെന്ന് നിങ്ങൾക്കു തന്നെ മനസിലാകരുതോ അപ്പോൾ അതിന് എന്ത് പ്രതികരണമാണ് എടുക്കുന്നത് മറുപടി പറയണം അല്ലാത്ത പക്ഷം അതിന് ഞങ്ങൾ അതിന് വേണ്ടി ആര് ഫുഡ് ഫുഡിനെപ്പറ്റി അറിയാവുന്നവരോട് ഞങ്ങൾ പറഞ്ഞു അതിന് ആക്ഷനെടുക്കും അത് നിങ്ങളുടെ ഹോട്ടലിനെത്തന്നെ ബാധിക്കും ഒക്കെ പരസ്യമായിട്ട് യൂട്യൂബിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസിനെ വളരെയധികം ബാധിക്കുന്ന കാര്യമാണ് അത് മനസിലാക്കി കൊണ്ട് നിങ്ങളോട് ഞങ്ങൾ നേരിട്ട് തന്നെ പറയുന്നു അല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് കംപ്ലെയിൻ്റ് ചെയ്താൽ മതിയായിരുന്നു അപ്പം നിങ്ങൾ അതിനുവേണ്ടുന്ന എന്താണെന്നു വച്ചാൽ മറുപടി തരണം എത്രയും അതിനുള്ള മറുപടി എത്രയും പെട്ടെന്ന് നിങ്ങൾ എടുക്കണം അല്ലാത്തപക്ഷം ഞങ്ങൾ അതിനു വേണ്ടുന്ന വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊള്ളട്ടെ